കലാകാരന്മാരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെല്ലാം നൂറ് ശതമാനം സത്യസന്ധമാണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല അവരിൽ തന്നെ കൃത്യത കുറവുമുണ്ട് അതു തന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളുമുണ്ട് ആവശ്യമില്ലാത്ത ന്യൂസുകളും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അവരെപ്പോഴും ഇങ്ങനെ സ്ക്രീനിനു മുമ്പിൽ നിലനിൽക്കുന്നതു കൊണ്ടായിരിക്കാം അവരുടെ വർത്തകൾക്കിത്രയും സ്വീകാര്യത ലഭിക്കുന്നത് അവരെക്കുറിച്ച് മോശം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം അതു കൂടുതലാൾക്കാൾ ആൾക്കാർ കേൾക്കാനും അതെന്താണെന്നറിയാനുമുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് അതുകൊണ്ടു തന്നെയാണവരെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ ഇത്രയധികം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് കലാകാരന്മാരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് കലാകാരന്മാരെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ന്യൂസുകളിലും ഒരു പത്തു ശതമാനമെങ്കിലും അവരെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പല റിപ്പോർട്ടറിസ് റിപ്പോർട്ടേഴ്സ് ചെയ്യാറുണ്ട് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ പറയുമ്പം ആണ് ആ ന്യൂസിനു സ്വീകാര്യത എപ്പോഴും ലഭിക്കുന്നത് അതുമല്ല കൃത്യമല്ലാത്ത ന്യൂസുകൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങളൊട്ടും കൃത്യതയില്ലാതെ തന്നെ നമുക്കു മുമ്പിൽ കൊണ്ടു വന്നു എത്തിക്കാറുണ്ട് പക്ഷേ അതു കൃത്യമല്ലെങ്കിൽ പോലും പലരും അതു വിശ്വസിപ്പിക്കാറുണ്ട് ആ ന്യൂസ് ശരിയാണ് അവരെക്കുറിച്ചു പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണെന്ന് ആ വ്യക്തിയെ നമുക്ക് ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവരെ എപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ടെന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതു കൊണ്ടുതന്നെ അവരുമായി അവരുമായിട്ടുള്ള മോശം വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരിക്കുന്നതും ഇങ്ങനെയുള്ള മോശം വാർത്തകൾ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നതു കൊണ്ടാണ് അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട വ്യാജവാർത്തകളിത്ര അധികം ഉണ്